ആ എന്നാ ഉണ്ട് അതേ റോബിനാണോ എന്നാ ഉണ്ട് വിളിച്ചേ വിളിക്കാറൊന്നും ഇല്ലാതിരുന്നതാണ് ആ ആ ആ ആ കൂടാൻ വേണ്ടി മാത്രമേ വിളിക്കത്തുള്ളൂല്ലേ എവിടാണ് പോവുന്നത് കൂടാൻ വേണ്ടി ഇവിടുണ്ട് ഇവിടുണ്ട് ഇവിടുണ്ട് ഷാപ്പി പോവാനാണോ ഉദ്ദേശം അപ്പോൾ അടുത്തൊക്കെയുണ്ട് അടുത്തൊക്കെ ഉള്ളതൊരു കൂതറയാണ് ഒരു വൃത്തിയൊന്നും ഇല്ല പിന്നെ കള്ളക്കെയാണേലും കലക്കൊക്കെയാന്നാ പറയുന്നത് പുളി കലക്കീതാന്നും പാലിൽ കളറ് മുക്കിയതാന്നൊക്കെ നമുക്ക് ആ ഇന്ന് അങ്ങനെ കൂടണേൽ നമുക്കിച്ചിരി ദൂരോട്ട് പോയാലോ നിങ്ങൾ കാവാലത്തിന് പോയിനോ കാവാലത്താവുമ്പൊരു ഷാപ്പുണ്ട് അടിപൊളി ഷാപ്പ് വള്ളത്തിൽ കയറി അപ്പുറത്താണ് നല്ല ഫുഡ് കിട്ടും രാജപുരോന്ന് പറയുന്നത് നല്ല അവിടെ നല്ല സെറ്റപ്പാണ് അവരിനിയും വേണമെങ്കിൽ ഇനി കള്ള് വേണ്ടെങ്കിൽ മറ്റേതുപയോഗിക്കാം ചോദിക്കുന്നുണ്ടോ എന്ത് സംഭവിച്ചു നല്ല നല്ല കറികളൊക്കെയാണ് ഫാമിലിയായിട്ട് വേണേലും പോവാം ഫാമിലിയായിട്ടവരൊരു വള്ളത്തേൽ റെസ്റ്റോറൻറ്റ് പോലൊരു സെറ്റ് ചെയ്തിട്ടുണ്ട് നാടൻ വിഭവങ്ങളിഷ്ടം പോലുണ്ട് നല്ല ടേസ്റ്റുള്ളതാണ് കേട്ടോ റേറ്റൊക്കെ റീസണബിളുണ്ട് ഞങ്ങൾ രണ്ടാഴ്ച മുന്നൊന്ന് പോയായിരുന്നു കുഴപ്പൊന്നൂല്ലാ റീസണബിളായിട്ടുള്ള റേറ്റാണ് പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ സർക്കാരത് നിരോധിച്ചിരുന്ന സാധനങ്ങളൊക്കവിടെ കിട്ടും ഈ പറയുന്ന ആമയും ഒരാമയും അങ്ങനെ പേരങ്ങനെ പറയത്തില്ലന്നേ ഉള്ളൂ വേറെ പേരിലൊക്കെ ആയിരിക്കും ഇത് ഇല്ലേന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല നല്ല ഇതായിരുന്നു അവർ തരക്കേടില്ലാത്ത രീതീൽ ഹാൻഡിൽ ചെയ്യും ആ എന്നാൽ പോവാം പിന്നെ ഇതൊന്നും പോവാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാ പോവണ്ടൊരു സൗകര്യത്തെ ഡേറ്റെടുക്കിപ്പോൾ ആ വലിയ പറമ്പിലെ ബിജുവാ

എന്നാൽ പിന്നങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് വിളിക്കാവോ ഞാനിച്ചിരി തിരക്കിലാണ് ഇപ്പം ഒന്ന് പ്ലാൻ ചെയ്തിട്ട് വിളിക്ക് കേട്ടോ ഇല്ല കുഴപ്പമില്ല കുഴപ്പമില്ലാത് പ്ലാൻ ചെയ്തിട്ട് ഡേറ്റ് പറഞ്ഞാൽ മതി ഞാൻ റെഡിയാ ഞാൻ റെഡിയായി വന്നോളാം ഓക്കെ ഓക്കെ ഓക്കെ ശരി ശരി ശരി ഓക്കെ ഓക്കെ